പക്ഷികൾ എനിക്ക് കുറെ പക്ഷികൾ ഇഹ് ഭയങ്കരം വ്യത്യസ്ഥമായ പക്ഷികളായിട്ട് എനിക്ക് തോന്നീയിട്ടുണ്ട് നമ്മൾ മൃഗശാലേലൊക്കെ പോയി കാണുമ്പോൾ അവിടെ കുറെ പക്ഷികളെ ഇട്ടിട്ടുണ്ടാകും സൊ ഓരോ പക്ഷിക്കും ഓരോരൊ പ്രത്യേകതകളും കാണാനുള്ള വ്യത്യസ്ഥതകളും എല്ലാതുണ്ട് നമ്മൾ ഓരോരോ പക്ഷികളുടെ അവിടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചത് വായിക്കുമ്പോൾ ഇങ്ങനക്കെ ഉണ്ടെന്ന് നമ്മൾ അതിശയിച്ച് പോകും അതുപോലെ ഒന്നാണ് ഓസ്ട്രിച്ചിനെയൊക്കെ ഭയങ്കരമൊരു ഓ ഭയങ്കരമൊരു അത്ഭുതമായിട്ട് തോന്നിയ ഒരു ബേഡ് അത് വേൾഡിലന്നെ ഏറ്റോം ലാർജസ്റ്റ് ബേർഡ് ആണല്ലോ ഓസ്ട്രിച്ച് പിന്നെ അതിൻ്റെ മുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കോഴി മുട്ട പോലല്ലല്ലോ ഓസ്ട്രിച്ചിടുന്ന മുട്ട ഭയങ്കര വലിയ മുട്ടയല്ലെ അത് നമ്മൾ കോഴി മുട്ട പുഴുങ്ങി തിന്നണ പോലെ കയിക്കാനായിട്ട് പറ്റും പക്ഷേ അത് പുഴുങ്ങാനായിട്ട് ഏകദേശം രണ്ടര മണിക്കൂറോളം നമ്മൾ പുഴങ് ഏഹ് ബോയിൽ ചെയ്യണം എന്നാലാണത്

ശരിയായിട്ട് വരുള്ളു അത്രയ്ക്കും വലിയ എഗ്ഗാണ് പിന്നെ ഹമ്മിംഗ് ബേർഡും എനിക്ക് പ്രത്യേകത തോന്നിയത് ഹമ്മിംഗ് ബേർഡിസിന് ബാക്കിലേക്ക് പുറകിലേക്ക് പറക്കാൻ പറ്റും ഒരു പക്ഷിക്കും വേറൊരു പക്ഷിക്കും അത് സാധ്യമല്ല സൊ ഈ ഹമ്മിംഗ് ബേർഡ് നല്ലൊരു പ്രത്യേകതയുണ്ട് പിന്നെ അവർ ഭയങ്കര അവരുടെ വിങ്സ് ചിറകുകൾ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് അവർക്കടിക്കാൻ പറ്റും പെൻഗ്വിൻസും എനിക്ക് ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്നി അവരെ കാണാനും നല്ലൊരു പ്രത്യേകതയുണ്ട് പിന്നെ അവർക്ക് മാത്രമാണ് ബേർഡസിൽ നേരെ നടക്കാൻ പറ്റണത് പെൻഗ്വൻസിന് മാത്രമാണ് അതുപോലെ തന്നെ കുറെ കുറെ പക്ഷികളുണ്ട് പിന്നെ മരം കൊത്തി എനിക്ക് ഭയങ്കരൊരു വെറൈലക്ക് നമ്മൾ അത്ഭുതപ്പെട്ട് നോക്കും ടൈപ്പ് ഒരു പക്ഷിയാണ് ഞാൻ ഞാൻ അത്ഭുതപ്പെട്ട് നോക്കുന്ന ഒരു പക്ഷിയാണ് മരം കൊത്തി മരത്തിനൊക്കെ കൊത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനത് കാണുമ്പോളത് അത് ഭയങ്കരരൊരു അസാധാരണമായൊരു കാര്യം കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറ് ഭയങ്കര വ്യത്യസ്ഥമായ ഓരോരോ കാര്യങ്ങൾ ഓരോരോ പക്ഷിക്കുണ്ട് ഇപ്പോൾ കുരുവിയാണെങ്കിൽ അവർ അവരുടെ ശബ്ദമുണ്ടാക്കണ രീതിയും ഭയങ്കരം രസമായിട്ട് തോന്നും ചെ എല്ലാ ഓ എല്ലാ പക്ഷിക്കും അതുപോലെ രസമായിട്ട് ശബ്ദമുണ്ടാക്കാൻ പറ്റില്ല കുരുവിക്ക് അത് ഭയങ്കരം രസമായിട്ട് ശബ്ദമുണ്ടാക്കാൻ ഒക്കെ പറ്റും ഭയങ്കരം ഓരോ പക്ഷിക്കും അതിൻ്റേതായ പ്രത്യേകതകളായിട്ട് അങ്ങനെ ഒരു പക്ഷി മാത്രം പ്രത്യേകതായിട്ട് എനിക്ക് തോന്നിട്ടില്ല എല്ലാ പക്ഷിയും ഭയങ്കര ഭയങ്കര വെറൈറ്റിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്